ഗ്രാമപ്രദേശങ്ങളിലുള്ളവര് അവരുടെ ഒഴിവ് സമയം ചെലവഴിക്കാൻ വേണ്ടിയവര് കളികളാണ് തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ അവര് വൈകുന്നേരങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ ഞായറാഴ്ചകളിലാണെങ്കിലും മറ്റുവൊക്കെ സമയം ചെലവഴിക്കുന്ന കളികള് കളി വല്ല ഫുട് ബോള് ക്രിക്കറ്റ് അങ്ങനെയുള്ള കളികളിലൂടെയാണ് ചിലപ്പോൾ ഗാമപ്രദേശങ്ങളിലൊക്കെ നെറ്റ് വർക്കിൻ്റെക്കെ പ്രശ്നം ഉണ്ടായി വരും മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കുന്നത് അങ്ങനെ റെയറായിട്ടായിരിക്കും അപ്പോൾ അവര് കൂടുതലും ഈ വൈകുന്നേരങ്ങൾലൊക്കെ കളിക്കാനായിരിക്കും എല്ലാരും ഓടി എത്തുന്നത് ഇപ്പോൾ കുട്ടികളാണെങ്കി തന്നെ സ്കൂൾ വിട്ട് വന്നാൽ വേഗം കളിക്കാനാണ് പോകുന്നത് അതുപോലെ ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് വച്ചാല് അവർക്ക് സ്പോർട്സിലൊക്കെ എപ്പോഴും മുന്നിലെത്താൻ സാധിക്കും ഒരുപാട് സമയം അവര് കളിക്കും കളികളിൽ എപ്പോഴും ഏർപ്പെടുന്നത് കൊണ്ട് അവർക്ക് സ്പോർട്സിലോക്കെ എപ്പോഴും മുന്നിലെത്താൻ സാധിക്കുന്നുണ്ട്